കൃഷിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം കൃഷി ചെയ്യുന്നത് എല്ലാ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ് അതായത് കൃഷി ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ഒരു എന്താ പറയുക ഒരു ഒരു സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ഇതാണ് കൃഷി ഇത് മണ്ണില് പണിയെടുത്ത് മണ്ണിലാണ് മണ്ണിലേക്ക് ഇറങ്ങി നടന്ന മണ്ണറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റും കൃഷി ചെയ്യുന്നത് കൃഷി മേഖലയിലൊക്കെ പല

ഇപ്പം ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്നായാലും കൃഷി മേഖലയിലേക്ക് വളരെ അധികം സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നമുക്ക് വരുന്നുണ്ട് ഇപ്പം ഏറ്റവും കൂടുതല് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന കൃഷിയിടങ്ങള് ആണ് അത്യാവശ്യം പച്ചക്കറി അതായത് ചീര ബസള അങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ചിലവില്ല ചിലവില്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള രാസവളങ്ങളൊന്നും ചേർക്കാതെ വിഷാംശങ്ങളൊന്നും ഇല്ലാത്തെ പച്ചക്കറികള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കൂടുതൽ ആൾക്കാറ് തിരിയുന്ന മേഖലയാണ് തോട്ടവിളകൾ തോട്ടക്കൃഷി തോട്ടക്കൃഷി എന്ന് വെച്ചാല് ഇത് നമുക്ക് അടക്ക തെങ്ങ് അങ്ങനെയുള്ള റബ്ബറ് അങ്ങനെയുള്ള ഏക്കറ് കണക്കിന് സ്ഥലങ്ങള് വച്ചിട്ട് നമുക്ക് തോട്ടകൃഷി നടത്താനും പറ്റുന്നുണ്ട് തോട്ട കൃഷിയില് ഇപ്പം റബ്ബറ് വേണെന്നുണ്ടെങ്കിൽ റബ്ബറ് വെട്ടിയിട്ട് അതിൻ്റെ പാലെടുത്ത് അതിൻ്റെ ഇതെല്ലാം നമുക്ക് ലാഭമെല്ലാം കിട്ടണമെങ്കില് ഒരു ഒരു പതിനഞ്ച് വർഷമെങ്കിലും വേണ്ടി വരും രാവിലെ എണീറ്റ് രണ്ടു മണിക്കെല്ലാം എണീച്ചിട്ട് അതിൻ്റെ തോല് ചെത്തിയിട്ട് അതിൻ്റെ പാലെടുത്ത് റബ്ബറ് ഷീറ്റുണ്ടാക്കിയിട്ട് മാർക്കറ്റില് കൊണ്ടുപോയി വിറ്റ് അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഒരുപാട് സമയവും വേണ്ടി വരും കൂടാതെ ഇപ്പം നമുക്ക് ആ മേഖലയിലേക്ക് ആൾക്കാറെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നേരിടുന്നുണ്ട് അപ്പം റബ്ബർ കൃഷിക്കാർക്കിപ്പോൾ പല ആൾക്കാറും പല രീതിയിലുള്ള പ്രതിസന്ധികള് നേരിടുന്നുണ്ട് പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് തെങ്ങ് കൃഷി തെങ്ങ് കൃഷി ആകുമ്പം ഒരു തെങ്ങുംതൈ നട്ട് അത് വളർന്നു വലുതായി നമുക്ക് അതിൻ്റെ കായ് ഫലം കിട്ടണമെങ്കില് ഒരു പതിനഞ്ച് വർഷത്തിലധികം എങ്കിലും എടുക്കും എന്തായാലും കാരണം അതിൻ്റെ വളർച്ച അത്രത്തോളം മെല്ലെയാണ് അതിലും നന്നായി പരിപാലിക്കാനും ആൾക്കാറ് വേണം പിന്നെ ഇത് തെങ്ങിൻ്റെ കൃഷി തെങ്ങ് കൃഷി എന്ന് വെച്ചാല് അത് തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല ഉപയോഗം ഉള്ളതാന്ന് തേങ്ങ തേങ്ങയുടെ ചകിരി ആയാലും തൊണ്ടായാലും അതിൻ്റെ ഓല തെങ്ങിൻ്റെ തണ്ട് വേര് മുതൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗമുള്ളത് സാധനമാണ് വസ്തുവാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാറ് തിരിയുന്നത് തോട്ടകൃഷി ആയ തോട്ടകൃഷിയിലെ പ്രധാനപ്പെട്ട അടയ്ക്ക അടയ്ക്കാ തോട്ടം അടയ്ക്കായെന്ന് പറയുമ്പം അടയ്ക്കയിലേക്ക് നമുക്ക് ഒരു ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ ഒരു അറുനൂറോളം അടയ്ക്കത്തൈ വെച്ച് നമുക്ക് അതില് കൃഷി ചെയ്യാം ഇപ്പം ഏതൊരു തോട്ടവിള ആയാലും കൃഷി ആയാലും പച്ചക്കറി ആയാലും ഒരു വർഷം നന്നായി കായ്ക്കും പിറ്റേത്തെ വർഷം

കൃഷി ചെയ്യുന്നത് അടയ്ക്കാത്തോട്ടത്തിലും അടയ്ക്ക ഒരു ഏക്കർ സ്ഥലത്ത് അറുനൂറോളം അടയ്ക്ക തൈ വെച്ച് അതിൽ നിന്നും കിട്ടുന്ന നല്ലൊരു വരുമാനമായിരിക്കും ഏകദേശം ഒരു അടയ്ക്കാത്തോട്ടത്തിൽ നിന്ന് തന്നെ ഒര് കവുങ്ങുന്ന് തന്നെ ഏകദേശം രണ്ട് മൂന്ന് കിലോയിൽ അധികം അടയ്ക്ക നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോള സാധാരണ നമ്മള് തെങ്ങ് തെങ്ങിന്ന് വിളവെടുക്കുന്ന സമയത്ത് ഒരു തെങ്ങിൽ കയറി അതിൻ്റെ തേങ്ങ എല്ലാം എടുത്ത് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത തെങ്ങിലേക്ക് കയറാൻ പക്ഷെ നമ്മുടെ അടയ്ക്ക വിളവെടുക്കുന്ന സമയത്ത് ഒരു കവുങ്ങിന് തന്നെ മറ്റൊരു കവുങ്ങിലേക്ക് ആൾക്കാർക്ക് കയറി അതിൻ്റെ വിളവ് എടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും സമയം ലാഭം നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട് അത് കൂടാതെ തന്നെ അടയ്ക്ക ഉണക്കി വിൽക്കുന്ന സമയത്ത് അതിനെ പാക്ക് പാക്ക് എന്ന് പറയും ആ പാക്കിന് തന്നെ നല്ല വിലയുണ്ട് അടയ്ക്ക കൃഷി കവുങ്ങ് കൃഷി ചെയ്യുമ്പം കവുങ്ങിൻ്റെ ഇടവിളയായി നമുക്ക് പച്ചക്കറികളും കുരുമുളക് അങ്ങനെയുള്ള വിളകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതും നല്ലൊരു ലാഭകരമായ പരിപാടിയാണ് അതുകൂടാതെ തന്നെ അടയ്ക്ക തെങ്ങ് കവുങ്ങിന് വെള്ളം നനയ്ക്കുന്ന സമയത്ത് സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ട് വെള്ളം എത്തിക്കാം അതിൻ്റെ എല്ലാ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിലും ഒരാള് മെനക്കെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല തെങ്ങിന നനയ്ക്കുന്നതിന് ആണെങ്കില് നമുക്ക് വെള്ളം അപ്പപ്പം അവിടവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പ ഇത് നല്ലൊരു സമയക്കുറവും പണി ലാഭമുള്ളൊരു രീതിയായിട്ട് മാറുന്നുണ്ട് പിന്നെ കവുങ്ങില് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നടത്തി വരുന്നുണ്ട് അപ്പം ഇത് കൂടുതല് വിള ലഭിക്കുന്ന തെങ്ങ് കൃഷി അല്ല ഇത് കവുങ്ങ് ഏതാണ് എന്ന് പരീക്ഷണത്തിലേക്ക് ആൾക്കാറ് കൂടുതല് വളരാതെ ഉയരം കുറഞ്ഞ കവുങ്ങ് നട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് വിളവെടുക്കുകയെന്ന് പരീക്ഷണം നടത്തിയിട്ട് ഇവിടെ നിന്ന് ഇപ്പം കാസർഗോഡ് ജില്ലയിൽ തന്നെ സി പി സി ആർ എയില് അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും എല്ലാം നടന്ന് വരുന്നുണ്ട് പക്ഷെ അത് അത്രത്തോളം വിജയകരമായി ആ എത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല അതായത് പിന്നെ അതുപോലെ തന്നെ കവുങ്ങ് തെങ്ങ് തെങ്ങ് കൃഷി തെങ്ങ് കൃഷി ആയാലും അതില് ഉയരം കുറഞ്ഞ തെങ്ങിലേക്ക് ആൾക്കാറ് എത്തിപ്പെടുന്നുണ്ട് പക്ഷെ അത് ഒരു വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് കായ്ക്കുന്നുള്ള ഇതിലാണ് ചെയ്യുന്നുള്ളത് അഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും ചില ആൾക്ക് കായ്ക്കുന്നുണ്ട് ചില ആളത് അത് ഇങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ വളർന്ന് പോകുന്നുണ്ട് അപ്പം അത് ഒരു വിജയകരമായ പദ്ധതി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അടയ്ക്ക ഇത് നമുക്ക് ഗവൺമെന്റ് നമ്മുടെ പി എം പ്രധാന മന്ത്രിയുടെ കിസാൻ പദ്ധതിയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ ആറായിരം രൂപ വെച്ച് ഓരോ കർഷകനും കിട്ടുന്നുണ്ട് അപ്പം അതും നമ്മുടെ കൃഷിയിലേക്ക് ഉല്പാദിപ്പിക്കാൻ കൃഷി കാർഷിക ഉൽപ്പന്നം വർദ്ധിപ്പിക്കാൻ നമുക്ക് കൂടുതലും സഹായകരം ആകുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഓരോ യുവ കർഷകരും വളർന്ന് വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓരോ വർഷവും കൃഷിയിലേക്ക് വരുന്നവരുടെ അവർക്ക് അവാർഡ് അവാർഡുകള് പ്രോത്സാഹനങ്ങള് എല്ലാം നൽകിക്കൊണ്ട് കൃഷിയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാം എത്രത്തോളം വളർത്തിയെടുക്കാം അതായത് യുവതലമുറകളിലേക്ക് കൃഷിയുടെ ഉപയോഗത്തിൻ്റെയും അതിൻ്റെ ഗുണത്തേയും കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാക്കാമെന്ന് എല്ലാം ഗവൺമെന്റ് നല്കുന്നുണ്ട് അപ്പം അതൊക്കെയൊരു നല്ല രീതിയിലേക്ക് പോയ്കൊണ്ട് ആൾക്കാർ കൃഷിയിലേക്ക് നീങ്ങാൻ കൂടുതല് സൗകര്യപ്പെടുന്നുണ്ട് അപ്പം ഇത്ര നല്ലൊരു കൃഷി വാർത്തെടുക്കണം അതായത് തോട്ടക്കൃഷിയാണ് ഏറ്റവും കൂടുതല് നല്ല രീതിയില് എന്ന് മനസ്സിലാകുന്നുണ്ട്